ദിവസം മുഴുവനും വെള്ളം ആവശ്യമുള്ള സാഹചര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യാൻ നമുക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ പാകം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളമില്ലാതെ ഒരു പാചകവും മുന്നോട്ടുപോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെതന്നെ നമുക്ക് പ്രഭാത കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ നമ്മുടെ നമുക്ക് കുളിക്കാനും പല്ലുതേക്കാനും ഒക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ് അതുപോലെതന്നെ ചെടികൾക്ക് ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ അതുപോലെതന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ പല പല കാര്യങ്ങൾക്കും നമുക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ തുണികൾ കഴുകാൻ ആയിരുന്നാൽ തന്നെ വെള്ളം നമുക്ക് ആവശ്യമാണ് പച്ചക്കറികൾ വൃത്തിയാക്കുന്നതിനു വേണ്ടി വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ് പാത്രങ്ങൾ കഴുകാനും ഓരോന്നിനായി നമ്മൾ സ്ഥിരമായി വെള്ളം ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഒരു ദിവസം പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് പ്രധാന കാര്യം അതുപോലെത്തന്നെ കുടിക്കാൻ കുടിക്കാൻ ഒരു ദിവസം മനുഷ്യൻ ഒരുപാട് വെള്ളം കുടിക്കണം ഒരു എട്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ഒരു അവസ്ഥ പറയുന്നത് പറയുന്നത് അപ്പോൾ നമുക്ക് കുടിക്കാൻ തന്നെ ഒരു മനുഷ്യൻ ദിവസം ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം ഉപയോഗിക്കാനുള്ള പല പല സാഹചര്യങ്ങൾ ഒരുപാടായി ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു